ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു പാചക ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന് പിന്നെ അവിടെ നിന്ന് കുറേ അറിവുകൾ എനിക്ക് പഠിക്കാൻ പറ്റി നല്ല നല്ല അറിവുകളാണ് എനിക്കവർ പകർന്നു തന്നത് എങ്ങനെ ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കാം വിഷാംശം കലരാത്ത വിഷാംശം ഇല്ലാത്ത പച്ചക്കറികളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പാചകം ചെയ്യാം എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അവിടെ നിന്ന് കുറേ തരത്തിലുള്ള ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ചെറിയ സമയത്തിനുള്ളിൽ നല്ല നല്ല ഐറ്റംസ് നല്ല നല്ല നല്ല നല്ല ടേസ് ടേസ്റ്റ് ആയിട്ടുള്ള ഇനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് അതറിയാൻ പറ്റി ഓരോ ഒരാളുടെ ഓരോരോ പിന്നെ ഉണ്ടാക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ചെറിയ കുറച്ചധികം സാധനങ്ങളിലൂടെ നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് സുഖമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും അവരാ ക്ലാസ്സിൽ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് നല്ലൊരു പാചകക്കാരിയാവാൻ പറ്റി എന്ത് കൊണ്ടും നല്ലൊരു നല്ലൊരു പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മയായി മാറാൻ പറ്റി എനിക്ക് കൂടാതെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ വലിയ ഐറ്റംസ് ഉണ്ടാക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റി അതുമാത്രമല്ല മറ്റുള്ളവർക്ക് അത് പകർന്ന് കൊടുക്കാനും പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കാമെന്നും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഇതൊക്കെ ചെയ്യാമെന്നും എല്ലാവരോടും അറി അറിയിക്കാൻ പറ്റി പിന്നെ കുറേ പാചക കലകൾ എനിക്കറിയാൻ പറ്റി പിന്നെ യൂട്യുബ് ചാനൽ യൂട്യുബ് വീഡിയോസ്സിൽ നിന്നും എനിക്ക് കുറേ അധികം ബെനഫിറ്റ് കിട്ടുന്നുണ്ട് അതൊരു പാചക ക്ലാസ് പോലെ തന്നെയാണ് ഒരോരാളുടെ ഒരു പാചക പാ കുക്കിങ് വീഡിയോസും ഞാൻ കാണാറുണ്ട് അതിൽ നിന്നും കുറേ അധികം ബെനഫിറ്റ് എനിക്ക് ഉണ്ടായി ഇങ്ങനെ പാചകം ചെയ്യാൻ എനിക്ക് ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് വെറും ചൂടുവെള്ളം മാത്രം ചൂടാക്കി കുടിച്ച് അങ്ങനെ ഒരു ഇത് ഉണ്ടായതാണ് പിന്നീട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പോയിരുന്ന് ഓരോരോ ആളുടെ ക്ലാസ് കേൾക്കലും അവരുണ്ടാക്കുന്ന രീതി കണ്ട് മനസ്സിലാക്കാനും അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കാനും കുറച്ച് പച്ചക്കറി വെച്ച് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കാനും ഒക്കെ ഈ ക്ലാസ്സിൽ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റി നല്ല ഗുണം തന്നെയാണ് ഈ ക്ലാസ്സുകളിൽ പോയിട്ട് എനിക്ക് ലഭിച്ചത് നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത് കുറെ നല്ല നല്ല പാചകം ചെയ്ത് പരിശീലനം നേടിയവർ എടുക്കുന്ന ക്ലാസ്സായിരുന്നു അത് നല്ല ക്ലാസ്സായിരുന്നു എനിക്ക് നല്ല മോട്ടിവേഷൻ മോട്ടിഫിക്കേഷൻ മോട്ടി മോട്ടിവേഷൻ കിട്ടുകയുണ്ടായി